ആ പറയൂ എടാ മോനെ അടുത്ത വീക്കിലോ ഓ എന്ത് പരിപാടി കിടന്നുറങ്ങണമെടാ മടുത്തു പിന്നെ ഇവിടെ കോളേജ് ലൈഫൊക്കെയായിട്ട് ആകെ മൊത്തം ശോകമടിച്ചിരിക്കുകയാണ് വീട്ടില് പോയിട്ടൊന്ന് റെസ്റ്റെടുക്കണം അല്ല നിനക്ക് വേറെ പണിയൊന്നുമില്ലെ നീയൊക്കെയല്ലേ ഈ ഇന്ത്യൻ സൂപ്പർ ലീഗ് കാണുകയുള്ളൂ എടാ എനിക്ക് അടുത്ത എന്നാണ് എന്നത്തേക്കാണത് അടുത്ത ശനിയാഴ്ചയോ എടാ ഒരു ദിവസമല്ലേടാ വെറുതെ കിട്ടുന്നത് അതും നമുക്കിങ്ങനെ കൊണ്ടുപോയി കളയണമോ അതും ഐ എസ് എല് എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത ലീഗും കൂടെയാണ് അതാണ് പറഞ്ഞത് ഉറങ്ങുന്നതല്ലേ നല്ലത് ഈ നമുക്കിഷ്ടമല്ലാത്ത പരിപാടി വന്ന് കാണേണ്ട കാര്യമുണ്ടോ ഇവിടെ പ്രീമിയർ ലീഗും ലലിഗയും അതുമിതുമൊക്കെ നടക്കുമ്പോള് അതൊക്കെ കണ്ടിട്ട് എങ്ങനെയാടാ ഈ ഐ എസ് എൽ കാണാൻ തോന്നുന്നത് ആ എപ്പോഴാണ് കളി സമയം പറയൂ എടാ അല്ല അല്ല ആരുമായിട്ടാണ് മാച്ച് ഓ ബംഗ്ലൂരിൻ്റെ മാച്ചാണോ ചേത്രി കളിക്കാൻ ഇറങ്ങുന്നുണ്ടോ ആ എന്നാല്പ്പിന്നെ ഒരുകൈ വല്ലതും നോക്കാം എൻ്റെ ചെലവ് മൊത്തം നീയെടുത്തുകൊള്ളണം യാത്രയ്ക്കുള്ളത് മാത്രം ഞാനെടുത്തുകൊള്ളാം ബാക്കി ഫൂഡ് എല്ലാം നീ നോക്കിക്കൊള്ളണം ആ അങ്ങനെ അങ്ങനെയാണെങ്കില് നമുക്ക് പോകേണ്ടടാ നീ പോയി കണ്ടോളൂ ഞാൻ വീട്ടില് കിടന്നുറങ്ങിക്കോളാം വേറെ ആരൊക്കെയുണ്ട് മ്മ് അവന്മാർക്കൊന്നും വേറെ പണിയില്ലല്ലേ എടാ അപ്പം ടിക്കറ്റോ അത് നേരത്തെയെങ്ങാണ്ട് ബുക്ക് ചെയ്യേണ്ടേ എത്രയാണ് ടിക്കറ്റിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയ്ക്ക് ഐ എസ് എല്ലോ ആ തൽകാലത്തേക്ക് ടിക്കറ്റും റേറ്റുമൊക്കെ ചോദിക്ക് എന്നിട്ട് നമ്മുടെ കയ്യിലൊതുങ്ങുന്നതാണെങ്കില് നമുക്ക് പോകാം ആ വരാം ആ വന്ന് എങ്ങനെയാണ് അപ്പോള് ഇവിടെനിന്ന് ഞാനെങ്ങനെയാണ് പിന്നെ അവന്മാര് എങ്ങനെയാണ് വരുന്നത് ട്രെയിനിനാണോ അതോ വണ്ടിയെടുക്കുമോ അതോ ഇനി വല്ല ബസും കയറി വരണമോ ആണോ അപ്പോള് ഷെയറിട്ട് ചാകുമല്ലേ മ്മ് ഓ ശരി ശരി